എപ്പോഴെങ്കിലും ഒരു വലിയൊരു പ്രതിമയോ കലാരൂപമോ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ പണ്ട് അതായത് ഞാൻ നല്ലവണ്ണം ചിത്രം ഒക്കെ വരയ്ക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വെറുതെ വീട്ടിൽ ഉണ്ടായിരുന്ന വലിയൊരു കല്ലിൽ കൊത്തി കൊത്തി കൊത്തി കൊത്തി നല്ലൊരു രൂപമായി വന്ന് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ദിവസവും ഇങ്ങനെ കല്ലുകളൊക്കെ കിട്ടുമ്പോൾ ഞാൻ കൊത്തുമായിരുന്നു അപ്പത്തന്നെ എനിക്ക് നല്ലൊരു അതായത് പല രൂപങ്ങൾ പിന്നെ ഞാൻ യൂട്യൂബിൽ കാര്യങ്ങളിലൊക്കെ ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കല്ല് കല്ലൊക്കെ കാണുമ്പം ഞാൻ ഇങ്ങനെ കൊത്തി ഓരോ പ്രതിമ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ക്യാഷിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു കല്ല് കൊത്തുന്നതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി മേടിക്കണം അപ്പം അതൊക്കെ ഒരു വെല്ലുവിളി ആയിട്ടാണ് എനിക്ക് നേരിട്ടത്